കൃഷി കൃഷിയെന്ന് വെച്ചാൽ പണ്ടുകാലം മുതലേ നമ്മുടെ നാട്ടിൽ ചെയ്തുവരികയും വിജയിക്കുകയും ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് കൃഷി കൃഷിയെന്ന് വെച്ചാൽ കൃഷിയിൽ ലാഭമുണ്ടാകാം നഷ്ടമുണ്ടാകാം കൃഷിയെ മെയിനായിട്ട് ബാധിക്കുന്നതെന്ന് വെച്ചാൽ കന്നുകാലികളും മൃഗങ്ങളുമാണ് കൃഷി എങ്ങനെ കുട്ടികളിലേക്ക് ആകർഷിക്കാമെന്നതിന് കൃഷിയുടെ ഉപകാരങ്ങളും ഉപയോഗങ്ങളും പറഞ്ഞുകൊടുക്കുക നാം കഴിക്കുന്ന ഓരോ വസ്തുക്കളിലും വിഷവും കീടനാശിനികളും അടങ്ങിയിരിക്കുന്നു കൊടിയ വിഷവും കൊടിയ കീടനാശിനികളും അടങ്ങിയിരിക്കുന്നു അത് കഴിച്ചാൽ ദൈനംദിനമായി നമുക്ക് അസുഖങ്ങൾ ലൈക്ക് പ്രമേഹം ക്യാൻസർ ബ്ലഡ് ഷുഗർ ലെവൽ എന്നിവയെല്ലാം കൂടാനുള്ള ചാൻസുണ്ട് അതിനാൽ വിഷമടങ്ങിയ ഭക്ഷണം കഴിക്കാതിരിക്കുക നാം സ്വന്തമായി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ പ്രസക്തിയും ഇതും നമ്മള് പറഞ്ഞുകൊടുക്കുക എന്നിട്ട് അതെങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപകാരപ്പെടുമെന്നും നാം സ്വന്തമായി കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നും ഇതിൻ്റെ ലാഭ കാര്യങ്ങളെക്കുറിച്ചും നഷ്ടങ്ങളെക്കുറിച്ചും നമ്മൾ വലിയ ബോധവാന്മാരാകുക കുട്ടികൾക്കിടയിൽ കൃഷിയെക്കുറിച്ചുള്ള നമ്മുടെ ലൈഫിനെ ഇംമ്പ്രൂവ് ചെയ്യാനും നന്നാക്കാനും സഹായിക്കുന്നു